എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ താഴെ തന്നെ ഒരു പുഴയുണ്ട് പുഴയിൽ പുഴയിലാണ് ഞങ്ങൾ മീൻ പിടിക്കാൻ പോക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പോകാറ് അതിന് പ്രത്യേകിച്ച് തയ്യാറെടുപ്പൊന്നും ഇല്ല വീടിൻ്റെ അടുത്ത് തന്നെ ആയത് കൊണ്ട് അതും പിന്നെ ഡ്രസ്സ് എടുക്കും ഡ്രസ്സ് മാത്രം പിന്നെ അത് പുഴയിൽ ഇറങ്ങാൻ നേരത്ത് കൂടുതലായിട്ടും വല വലയിടും പുഴയ്ക്ക് പുഴയിൽ ക്രോസ് ആയിട്ട് ഇടും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിന് ചുറ്റും വല ഇട്ട് വെക്കും അതിൽ വൻ മീൻ കുടുങ്ങും പിന്നെ അത് അല്ലെങ്കിൽ നമ്മളുടെ സാധാ മറ്റേ മുള ഇല്ലേ ഇല്ലി ഇല്ലി എന്ന് പറയും ഇല്ലീൻ്റെ കമ്പ് കെട്ടി അതിൻ്റെ അറ്റത്ത് ഒരു കയറും നെങ്കീസ് കൊക്ക കെട്ടി ചൂണ്ട ആക്കും ചൂണ്ട ആക്കി സാധാ മണ്ണിരേനെ അതിനകത്ത് തീറ്റ ആയിട്ട് ഉപയോഗിക്കും മീനിന് മണ്ണിരേനെ മാന്തും മണ്ണിരേനെ മാന്തി അതിനകത്ത് ചൂണ്ടയിൽ കൊളുത്തി ഇട്ട് കഴിഞ്ഞാൽ അങ്ങനേയും മീൻ പിടിക്കും ഈ രണ്ട് രീതിയിലാണ് ഇപ്പം കൂടുതലായിട്ടും മീൻ പിടിക്കാറുള്ളത് പിന്നെ ഇടയ്ക്ക് അവിടെ താഴെ തന്നെ ഡാം ഡാം പോലെ കെട്ടി നിർത്തിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിച്ചിട്ട് വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ പിടിക്കും അങ്ങനെയൊക്കെ വേറെ തയ്യാറെടുപ്പുകൾ ഒന്നും എടുക്കുകയില്ല വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ആയത് കൊണ്ട് വലിയ തയ്യാറെടുപ്പ് ഒന്നും ഇല്ല സമയം ഒരു ഒന്ന് ഒന്നര രണ്ട് മണിക്കൂർ എങ്ങനെയാണെങ്കിലും വെള്ളത്തിൽ തന്നെ ഇതാ സമയം ചിലവഴിക്കും